വയനാട് റെസ്റ്റോറൻറ്റ് ആണോ ആ എനിക്ക് കുറച്ച് ഫുഡ് വേണായിരുന്നേ അപ്പം ഒർഡറ് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു അവിടെ എല്ലാം അതായത് മെക്സിക്കൻ ചൈനീസ് ഇറ്റാലിയൻ അങ്ങനെ എല്ലാ തരത്തിലൊള്ള ഫുഡ് ഉണ്ടോ അതോ ഇന്ത്യൻ ഫുഡ് മാത്രമാണോ ഉള്ളത് ആ ഉണ്ടല്ലേ

എനിക്ക് ഇറ്റാലിയൻൽ ഏതൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് ആണല്ലേ അങ്ങനേണങ്കിൽ ഇറ്റാലിയൻ ചിക്കൻ വേണം ആ യെസ് യെസ് യെസ് പിന്നെ ചൈനീസ് ന്യൂഡിൽസ് ഉണ്ടോ അതൊരു അഞ്ച് പേർക്ക് കഴിക്കാൻ പാകത്തിന് വേണം മെക്സിക്കൻ എന്തൊക്കെയാ വിഭവങ്ങളുള്ളത് ആ ഓക്കെ ഓക്കെ ആ അതേ ഉള്ളൂല്ലേ എന്ന അതും അതും വേണോട്ടൊ എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടീയായിരുന്നു ഇനി ഇന്ത്യൻ ഫുഡുകളും വേണം അതായത് ബിരിയാണി മതി ഒരു ആറ് ബിരിയാണി പാഴ്സല് കേട്ടൊ ആ ഓക്കെ ഓക്കെ സ്ഥലം നമ്മുടെ മാനന്തവാടി തന്നെയാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ വിളിച്ചാൽ മതി ഞാൻ ഞാൻ അഡ്രസ്സ് ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം